നമ്മുടെ അവിടെയൊക്കെ ഈ പ്രാണികൾ അല്ലെങ്കിൽ തേനീച്ച കുത്തി കഴിഞ്ഞാൽ സാധാരണ രണ്ടു മൂന്നു കാര്യങ്ങളാണ് ചെയ്യുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആദ്യം അവിടെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഉപ്പ് വയ്ക്കും നമ്മുടെ ഈ കല്ലുപ്പ് ഉണ്ടല്ലോ അത് വയ്ക്കും അല്ലെങ്കിൽ പിന്നെ തേൻ പുരട്ടുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേയ്ക്കുക അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടി തേച്ചിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് ടൈറ്റാ കുറച്ച് കട്ടിയാവണ രീതിയിൽ വച്ചിട്ട് അവിടെ തേച്ചു വയ്ക്കുക അങ്ങനെ കുറച്ചു കാര്യങ്ങളാണ് ചെയ്യാറ് പിന്നെ നമ്മള് വേറെ ചെയ്യണതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പച്ചമരുന്ന് പച്ചമരുന്നുകൾ ഉണ്ട് ഈ കുറുന്തോട്ടി അങ്ങനെ എന്തൊക്കെയോ രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വൈദ്യന്മാരുടെ അടുത്ത് പോയിക്കഴിഞ്ഞാൽ അവിടെ പോയിക്കഴിഞ്ഞാല് അവര് രണ്ടുമൂന്ന് ഇല കാര്യങ്ങളൊക്കെ വലിച്ച് സെറ്റ് ആക്കി ഇതുപോലെ സെറ്റ് ആ പേസ്റ്റ് പോലെ കുറച്ച് കട്ടിയിൽ ഒക്കെ ആക്കിയിട്ട് അത് വെക്കും അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒക്കെ ചെയ്തുവരുന്നത്